ഒഴിവുസമയം വാഗ്ദാനം ചെയ്യുന്ന നമ്മുടെ പ്രധാന വിനോദസഞ്ചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളമാണ് കേരളത്തിനെ പൊതുവേ പറയുന്നത് ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രകൃതി സൗന്ദര്യം കനിഞ്ഞ് അനുഗ്രഹിച്ച ഭൂമിയിലെ സ്വർഗ്ഗമാണ് എന്നാണ് നമ്മുടെ കേരളത്തിനെ പറയുന്നത് പിന്നെ അതിൽ കേരളത്തിലെ കുറച്ച് എനിക്കറിയാവുന്ന വിനോദസഞ്ചാര ഏറ്റവും പ്രധാനപ്പെട്ടത് വിനോദസഞ്ചാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കടൽ തീരം കടൽത്തീരത്തിൽ ഇപ്പോൾ അറിയാവുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോവളം ഉണ്ട് വർക്കല ശംഖുമുഖം ആലപ്പുഴ ചേറായി ബേക്കൽ പിന്നെ നമ്മുടെ തലശ്ശേരിക്കടുത്തുള്ള മുഴുപ്പിലങ്ങാട് ബീച്ച് ഇവയെല്ലാം കടൽത്തീരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പിന്നെയുള്ളതാണ് കായലുകാൽ കായലുകളിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഷ്ടമുടി കായലുണ്ട് കുമരകം പാതിരാമണൽ ഇങ്ങനെ കുറെ കായലുകളുണ്ട് പിന്നെയുള്ളതാണ് പിന്നെ വിനോദസഞ്ചാര കേന്ദ്രമായി പറയുന്നതാണ് നെയ്യാർ മൂന്നാർ നെല്ലിയാമ്പതി പൊന്മുടി വയനാട് പൈതൽമല വാഗമൺ തുടങ്ങിയ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇവയെല്ലാം ഇവ ഇതിൽ പൈതൽ മലയിലേക്ക് ഞാൻ പോയിട്ടുണ്ട് അതും അടിപൊളിയാണ് അവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകളും എല്ലാം നല്ല അടിപൊളി അടിപൊളിയാണ് പിന്നെയുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രവും പിന്നെ ഇരവികുളം ദേശീയ ഉദ്യാനമുള്ള വിനോദസഞ്ചാര കേന്ദ്രവും ഇവയെല്ലാമാണ് ചെ എനിക്കറിയാവുന്ന ചെറിയ നമ്മുടെ സമയം വ പിന്നെ ചിലവഴിക്കാൻ പറ്റിയ ചെറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ